ഡങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും അങ്ങനെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാന് ചെയ്യുന്നത് ഒന്നാമത് നമുക്ക് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുകുകൾ പെറ്റ് പെരുകാന് അനുവധിക്കരുതെന്നുള്ളതാണ് മുട്ടയിട്ട് പെരുകാനായിട്ട് അനുവധിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം അതിന് വേണ്ടിട്ട് നമ്മൾ മോശമായിട്ട് കിടക്കുന്നത് അഴുക്കായിട്ട് കിടക്കുന്ന വെള്ളം അതെല്ലാം നമ്മളിത് പോലെ ചിരട്ടയിലോ അത് പോലെ ചട്ടി അത്പോലെ ഏതെങ്കിലും പാത്രങ്ങൾ അങ്ങനെ ഉള്ള എല്ലാത്തിലും ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കും മഴയൊക്കെ മഴയൊക്കെ വീഴുമ്പോൾ മഴവെള്ളം നിറഞ്ഞ് അതിനകത്ത് ഉണ്ടാകും അപ്പം അത് പോലുള്ള വെള്ളങ്ങളിലാണ് കൂടുതലും കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് അപ്പോൾ അങ്ങനെ മുട്ടയിട്ട് പെരുകാന് അനുവധിക്കാണ്ട് നമ്മളാ വെള്ളം തട്ടിക്കളഞ്ഞ് ആ പാത്രം ഏതാണോ അതിങ്ങനെ കമഴ്ത്തി നമ്മൾ വെക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് മുട്ട മുട്ടയിട്ട് പെരുകുന്നത് നമുക്ക് കുറക്കാൻ പറ്റും അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വച്ച് കഴിഞ്ഞെന്നാൽ അത് ഈ രാത്രീലൊക്കെ ആണെങ്കിലും പുകയിടും ആ പുകയിടാന്ന് വച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇലയോ അല്ലെങ്കിൽ എന്താ കരിയില എല്ലാം കൂടെ തൂത്തിട്ടിട്ട് അങ്ങനെ പുകയിടും അല്ലാന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുന്തിരിക്കം ഒക്കെയുണ്ടല്ലോ കുന്തിരിക്കം ഒക്കെ വച്ചിട്ട് അങ്ങ് പുകയിടും അങ്ങനെ വരുമ്പോൾ കൊതുക് ശല്യം കുറെ അങ്ങ് പോകും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ വരത്തില്ല അപ്പം അത് പോലെ എല്ലാ വീടുകളിലും ചെയ്യുവാണെന്നുണ്ടെങ്കില് ഇതേപോലെ ആ കുട്ടികളെ ആ വീട്ടിൽ കുട്ടികള് ഉണ്ടെങ്കിൽ ആര്ക്കാണേലും ഇതേപോലുള്ള രോഗങ്ങള് വരാതിരിക്കാനായിട്ട് അതായത് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളില് നിന്ന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പറ്റും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് അതിനെ പരമാവധി അതിന് മുട്ടയിട്ട് പെരുകാന് അനുവദിക്കാതിരിക്കുകാന്ന് ഉള്ളതാണ് ഏറ്റവും ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് പോലെ രാത്രി ഒക്കെ പുകയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് പുക ഇടുന്നത് കൊതുകിനെ തടുക്കാന് വേണ്ടി മാത്രമല്ല അല്ലെങ്കിലും നമ്മൾ രാത്രി ഇതേപോലെ കുന്തിരിക്കയൊക്കെ കത്തിക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് ആണെന്നാണ് പറയുന്നത് കാര്യമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെയാണ് പ്രായമുള്ളവരൊക്കെ പറയുന്നത് അപ്പം അതൊരുപാട് നല്ലതായിരിക്കും പിന്നെ എന്താ പറയണ്ടത് ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് ആരോഗ്യ പ്രവര്ത്തകരായാലും വീടുകളിലായാലും ചെയ്യാറുണ്ട് പിന്നെ മരുന്നടിക്കാറുണ്ട് കേട്ടോ ആശുപത്രികളിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് മരുന്നടിക്കാറുണ്ട് ഇത്പോലെ ചീത്തയായിട്ടുള്ള ഇപ്പം തോടോ കുളമോ ഒക്കെ അടുത്തുണ്ട് അതെല്ലാം ചീഞ്ഞ് ചീത്തയായിട്ട് കിടക്കുവാണ് നല്ലതല്ലാന്നുണ്ടെങ്കിൽ അത്പോലെ അത്പോലെ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ അഴ്ക്ക് പിടിച്ച് കിടക്കുന്ന പരിസരമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ വന്ന് മൊത്തത്തിൽ അവർ വന്ന് മരുന്ന് അടിച്ചിട്ട് പോകാറുണ്ട് ഒരു ആശാ പ്രവര്ത്തകേം അത്പോലെ കൂടെ ആരെങ്കിലും വന്നിട്ട് മൊത്തത്തിൽ മരുന്ന് അടിച്ചിട്ട് പോകാറുണ്ട് ഇതൊക്കെയാണ് നമ്മളിവിടെ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യുന്നത്